വീട്ടിൽ അതിഥികൾ എപ്പോഴെങ്കിലും അറിയാതെ നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തു ചെയ്യണം എന്നറിയേലാ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് പെട്ടെന്ന് പച്ചരി ചോറുണ്ടാക്കും അതിനു വേണ്ടുന്ന ഒരു സാറ് പിന്നൊരു ചിക്കൻ വറവാക്കും പിന്നെ ഒരു മീൻ ഫ്രൈയാക്കും അങ്ങനെ ഒരു പായസം ഉണ്ടാക്കും അതുണ്ടാക്കി അതിഥികളെ പെട്ടെന്ന് സത്ക്കരിക്കും നമ്മൾ പിന്നെ വേറെ എന്തെല്ലാം നമുക്ക് എന്താണ് ചോറുണ്ടാക്കും കടലക്കറിയാക്കും പിന്നേ വേറെ മീൻ ഫ്രൈയാക്കും കൂട്ടുകറിയാക്കും വറവാക്കും ഇതൊക്കെ ചെയ്ത് അതിഥികളെ നമ്മൾ സത്ക്കരിക്കും ഇഷ്ടപ്പെട്ട വിഭവം മീൻ കറി ഉണ്ടാക്കും പിന്നെ വറവ് അതെല്ലാക്കും ഇഷ്ടം അവിയലാണ് അവിയൽ കറി ഇഷ്ടമാണ് പാൽപ്പായസം അതൊക്കെ ഇഷ്ടമാണ് പിന്നെ എത്ര ആളുവന്നാലും നമുക്കത് ഉള്ള കറികൾ കൊണ്ട് ചോറ് ഉണ്ടാക്കിക്കൊടുക്കാനെല്ലാം ഇഷ്ടം തന്നെ എത്ര പേർ നമുക്ക് ചെറിയൊരു ഹോട്ടലുണ്ട് അതുകൊണ്ട് എത്ര ആൾ വന്നാലും നമുക്കത് ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല ഹോട്ടലിൽ കുറേ ചോറും കറിയും രണ്ട് മൂന്ന് മൂന്ന് നാലുതരം കറിയും ചോറും എല്ലാം വെക്കണം മീൻ പൊരിക്കണം മീൻ കറി വെക്കണം അപ്പോൾ അതിഥികൾ വന്നെങ്കിൽ അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാനും എല്ലാം അത് ഉണ്ടാക്കും ആൾ എത്ര ആൾ വന്നാലും അതൊരു പ്രശ്നമല്ല നമുക്ക് എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും വേഗം ഉണ്ടാക്കാൻ കഴിയുന്നത് പച്ചരിച്ചോറാണ് അതുകൊണ്ട് പച്ചരിച്ചോറ് നമ്മളുണ്ടാക്കും പിന്നെ മീൻ ഫ്രൈയും മീൻ കറിയും എല്ലാം ഉണ്ടാകുമ്പോൾ അത് കൂട്ടി അവർക്ക് ഇതാക്കും നമ്മൾ പിന്നെ വേറെ വേറെ കറിയെല്ലാം ഇപ്പോൾ വെക്കുക പിന്നെ മീൻ കറി മീൻ വറവ് കച്ചംബർ അച്ചാർ ഇതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് കൂടുതൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞെങ്കിൽ പച്ചരിച്ചോർ വെച്ചിട്ട് കൊടുക്കും അതാണ് ഇഷ്ടം പച്ചരിചോറ് അടുപ്പിൽ വിറക് കത്തിച്ചിട്ട് ചോറ് വെക്കുന്നത് കറിയൊക്കെ ഗ്യാസിലുണ്ടാക്കും പിന്നെ മീൻ മീൻ കറി വറവ് അതെല്ലാം ഉണ്ടാക്കും ചെയ്യും ആൾക്ക് ഒന്നോ രണ്ടോ ആൾ വന്നെങ്കിൽ പ്രശ്നമില്ല അതൊന്നും ഒരു സംഗതി ആയിട്ട് തോന്നുന്നില്ല പാചകം ചെയ്യാൻ കുറേ ആൾ വന്നു കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണമെന്നു നമുക്കറിയില്ലല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കും സാറാണല്ലോ വേഗം ആകുന്നത് അതുകൊണ്ട് സാറാക്കിയിട്ട് സോറും ബെച്ചിട്ട് കൊടുക്കും പിന്നെ പായസം ഇതെല്ലാം ആക്കുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം സമയമൊന്നുമില്ല പെട്ടെന്ന് ആകുന്ന കാര്യാ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പോകലില്ല ചോറും കറിയും മാത്രം വെച്ചിട്ട് പാചകം ഉണ്ടാക്കും ഭക്ഷണം അധികം ഒന്നും ഇതാക്കലില്ല പിന്നെ മീൻ കറിവെക്കാനിഷ്ടം വറവലുണ്ടാക്കാനിഷ്ടം ചിക്കൻ കറി വെക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ അതുകൊണ്ട് അതിന് അത് ഇല്ല ബാക്കിയൊക്കെ വെക്കാൻ അത്ര വലിയ സംഭവമൊന്നും അല്ല എത്ര ആൾ വന്നാലും ഇപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇപ്പോഴും അത് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അത് വലിയ സംഗതി ആയിട്ട് തോന്നുന്നില്ല അതൊരു പ്രശ്നമേ അല്ല അത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നു പച്ചരി ചോറെല്ലാം വേഗം നമുക്ക് അത് ഇതാക്കുക ഒരു പത്ത് മുപ്പത് പേരെല്ലാം വന്നെങ്കിൽ അവർക്ക് വേണ്ടുന്നതു പോലെ ആക്കാനെല്ലാം നമുക്ക് കഴിയും പിന്നെ പ പണ്ടേ ഭക്ഷണം ചെയ്തു പരിചയമുള്ളതു കൊണ്ട് നമുക്കതൊന്നും വലിയ സംഗതി ആയിട്ട് തോന്നുന്നില്ല വേഗം വേഗം വേഗം അതൊക്കെ ആകും നമുക്ക് പിന്നെ എല്ലാം ഒരു സന്തോഷമല്ലേ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം നല്ല ഇത് സന്തോഷമല്ലേ അതുകൊണ്ട് ഇതാക്കും പിന്നെ കൂട്ടുകറിയൊക്കെ കൂട്ടുകറി അവിയൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം വെക്കാനെല്ലാം എളുപ്പമല്ലേ അതുകൊണ്ട് അതെല്ലാം വേഗം വേഗം നമ്മൾ ചെയ്യാറുണ്ട് എപ്പോഴും സാമ്പാർ സാമ്പാർ വെക്കും വറവാക്കും എന്നും സാമ്പാർ തന്നെ വേണം അതുകൊണ്ട് അതെന്നും ചെയ്യുക വലിയ അതിഥികൾ വന്നാൽ വലിയ സംഗതി ആയിട്ട് തോന്നുന്നില്ല നമുക്ക് വേറെ എന്താ മറ്റുള്ളവർക്ക് വന്നവർക്ക് ഭക്ഷണം അധികം ചി ചിക്കൻ കറിയാണല്ലോ ഇഷ്ടം അതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞെങ്കിൽ വേഗം ചിക്കൻ കറി ആക്കും ഒരു സാറാക്കും പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ നമ്മൾ വീട്ടിലെന്നെങ്കിൽ സാധാരണ ഒരു സാറും ഒരു മീൻ പൊരിച്ചതും മാത്രമേ കഴിക്കാറുള്ളു വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല പെട്ടെന്നാകുന്നത് അതല്ലേ അതുകൊണ്ട് അത് ഉണ്ടാക്കും വേറെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഒരു രസം ഒരു വറവും ആരെങ്കിലും പെട്ടെന്നു വന്നു കഴിഞ്ഞെങ്കിൽ അതിഥികൾക്ക് വേഗം അതാണെന്ന് ഉണ്ടാക്കി കൊടുക്കൽ അത് സൽക്കാ ഇഷ്ട വിഭവം അവിയൽക്കറിയും പച്ചരിച്ചോറും സാറും അതാണ് കൂടുതലും ഇഷ്ടം വേറെ വിഭവങ്ങളൊന്നും അങ്ങനെ ആക്കാറുമില്ല അതിഥികൾ വരുന്നത് ഇഷ്ടമാണ് അവർ വരുമ്പോൾ നല്ലൊരാരംഭം സദ്യയെല്ലാം ഒക്കെ ഉണ്ടാക്കാനെല്ലാം നല്ല ഒരു ഇതല്ലേ അതുകൊണ്ട് മാത്രം വേറെ ഇതൊന്നും ഇല്ല കറിയൊക്കെ ആക്കാനൊന്നും പ്രശ്നമില്ല വേഗം വേഗം സാധനം എല്ലാം ഉണ്ടാകുമ്പോൾ വേഗം വേഗം അത് ചെയ്യുക പറ്റും നമുക്ക് അതുകൊണ്ടൊന്നും വലിയ പ്രശ്നമാകുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനെല്ലാം ഭയങ്കര മടിയല്ലേ പുറമെ പുറമേലത്തെ ഫുഡ് കഴിക്കാനല്ലേ ഇഷ്ടം എല്ലാവരും പാഴ്സൽ കൊണ്ടു വരലും കഴിക്കലെല്ലാം നമ്മൾ പിന്നെ അതൊന്നും ചെയ്യാറില്ല നമ്മൾ വീട്ടിൽ എന്ത് നമുക്കുണ്ടാക്കാൻ പറ്റുന്നു അത് വേഗം ഉണ്ടാക്കും ചോറും കറിയും തന്നെ ആക്കിയിട്ട് വന്നവർക്ക് കൊടുക്കും നമ്മൾ അപ്പോൾ പുറമേലത്തെ ഫുഡ് കഴിക്കാറില്ല പുറമേലത്തെ ഫുഡ് ഇഷ്ടമല്ല വീട്ടിലെന്തായാലും ഒരു സാറായാലും അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു വിഭവമായതുകൊണ്ട് പേടിയില്ലാതെ കഴിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് മാത്രം വീട്ടിൽ നിന്നു തന്നെ ആരു വന്നാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കലാന്ന് എത്ര പേര് വന്നെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാലും നമ്മൾ ആക്കിയിട്ട് കൊടുക്കും പൊ പുറമേ നിന്ന് വാങ്ങാറില്ല അത്രയേ പറയാനുള്ളൂ